ഹലോ കെ സ് ഇ ബി ലൈൻ മാനല്ലെ അ ഞാൻ വിളിച്ചത് മാമ്പഴക്കരി ബ്ലോക്ക് ജങ്ഷൻ ന് അടുത്ത് നിന്നാണ് ഒര് പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടിയായിരുന്നേ അപ്പം എന്തൊക്കെ ഡോക്കിമെൻറ്റ്സ്സ് വേണം

എന്തക്കെ ഡോക്കിമെൻറ്റ്സ്സ് വേണം എത്രയാണ് ഫീസ്സ് അതൊക്കെയൊന്ന് പറയാമോ മാമ്പഴക്കേരി ബ്ലോക്ക് ജങ്ഷൻ ന് അടുത്തായിട്ട് എത്ര ദിവസം എത്ര ദിവസം എടുക്കുമെന്ന് ഒന്ന് പറയാവൊ ഇപ്പം ഈ പുതിയ പോസ്റ്റക്കെ മാറിയിടണം അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടോ അതിന് ഞങ്ങൾ പൈസ തരണൊ

അതിന് ഞങ്ങള് പൈസ തരണൊ ആണൊ അപ്പം എന്നത്തേക്ക് വരും അപ്പം ഡോക്യുമെൻറ്റ്സ് എന്നതൊക്കെ ആണെന്ന് ഒന്ന് പറയാവൊ

സ്ഥിരവായിട്ട് ഒരൂ ആളായിരുന്നു പക്ഷേ ആ പുള്ളി സ്ഥലം മാറിയെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ആ നാളെ ഉണ്ടോ ഈശ്വര അത്യാവശം ആയിരുന്നു ഇയ്യോ ഇതൊരു ഇച്ചിരി അത്യാവശ്യവായിരുന്നു ഇവിടെ കണക്ഷനില്ല അപ്പം പുതിയൊര് കണക്ഷനെടുക്കാൻ വേണ്ടിയായിരുന്നു അതിൽ നിന്നെടുക്കുമോ ഓക്കെ നമ്പര് വാട്ട്സ്പ്പ് ചെയ്തേക്കണം പിന്നെ ഇച്ചിരി പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം അത്യാവശ്യമായിരുന്നു ബ്ലോക്ക് ജംങ്ഷന് അകത്തോട്ടുള്ള വഴി അവിടെ വരുമ്പം വിളിച്ചാൽ മതി ആ ഈ നമ്പരിൽ തന്നെ വിളിച്ചാൽ മതി ആ അതും ഉപ്പയുടെ നമ്പറാണ് ഓക്കെ